ഞങ്ങളുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മലയാള ഭാഷ പങ്ക് പങ്കുവഹിക്കുന്ന ഒരു പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കാരണം ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു ഒരു വ്യക്തിയും ആദ്യമായിട്ട് പഠിക്കുന്നതും സംസാരിക്കാൻ പഠിക്കുന്നതും എഴുതാൻ പഠിക്കുന്നതും അല്ലെങ്കിൽ പറയാൻ പഠിക്കുന്നതും അവൻ്റെ മാതൃഭാഷ തന്നെയായിരിക്കും അവൻ്റെ മാതൃഭാഷയ്ക്ക് അവൻ്റെ ജീവിതത്തിലുള്ള പങ്കെന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതായിരിക്കും മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്നാണ് പറയുന്നത് അതെന്നു പറഞ്ഞാൽ കറക്റ്റാണ് കാരണം

അതിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നമ്മളൊരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയാക്കി മാറ്റുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ മാതൃഭാഷ തന്നെയാണ് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും നമുക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മളാദ്യം പറഞ്ഞു പോകുന്നത് തന്നെ നമ്മുടെ നെറ്റിവ് അല്ലെങ്കിൽ നമ്മളുടെ മലയാള അല്ലെങ്കിൽ മാതൃഭാഷ തന്നെയായിരിക്കും സോ മാതൃഭാഷയ്ക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം പങ്കുണ്ട് നമ്മൾ മാതൃഭാഷ ത്രു എന്തെങ്കിലുമൊരു കാര്യം നമ്മള് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്തുചെയ്യുകയാണെങ്കിലും എന്തില്ല മറന്നുപോകില്ല അത് മാത്രമല്ല നമുക്ക് പല ഭാഷകളും പഠിച്ചിരുന്നാൽ കൂടി നമുക്ക് മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ടൻസ് മറ്റ് ഏത് ഭാഷയിലും സംസാരിച്ചാലും കിട്ടില്ല നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആണെങ്കിൽ തന്നെ അത് ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് മേഖലകളിൽ നമുക്ക് കഴിവ് തെളിയിക്കാനായിട്ട് നമ്മളുടെ ഈ മാതൃഭാഷ നമുക്ക് യൂസ് ചെയ്യാം അതെപോലെ തന്നെ അത് ത്രൂ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും അതിനനുസരിച്ച് വലുതാണ്